നമ്മള് പറഞ്ഞുവെച്ചു മത്സ്യബന്ധനമെന്നുള്ളത് ഇവിടെ അവസാനിക്കാൻ പാടില്ലാത്തതാണെന്നും അതുപോലെ തന്നെ തുടർന്നുവരുന്ന തലമുറ തീർച്ചയായിട്ടും ഇതിൻ്റെ ഭാഗമാകണമെന്നൊക്കെ നമ്മള് എന്തായി പറഞ്ഞുവെച്ചു ഇനി ഈ മത്സ്യബന്ധനമെന്നുള്ളത് ഇപ്പോഴത്തെ ആളുകളുടെ അവസ്ഥ അതായത് കടലിൽ പോകുന്ന ആളുകള് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിലോ അവര്ക്കെന്തെങ്കിലും അപകടം സംഭവിച്ചാല് ആ പ്രദേശത്തെ ആളുകൾ പോലും ആരും തിരുഞ്ഞുനോക്കാതെ പോകുന്നയൊരു അവസ്ഥയാണ് അവർക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും അവർക്ക് ജീവിക്കാൻ വേണ്ടി അവരുടെ കുടുംബത്തിന് ഇപ്പോള് കടലിൽ പോകുന്നത് മിക്കവാറും അവിടുത്തെ കുടുംബനാഥനാകാം ആ കുടുംബം ആ കുടുംബത്തിന് ചെലവും കാര്യങ്ങളുമൊക്കെ നോക്കുന്നത് അദ്ദേഹമാകും അദ്ദേഹം കിടപ്പിലായാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബം അനുഭവിക്കുന്നത് വളരെയധികം ഒരു വേദനാജനകമായ അവസ്ഥ തന്നെയായിരിക്കും നമുക്കെല്ലാവർക്കും അറിയണമത് അപ്പോള് ഈയൊരു സാഹചര്യത്തിൽ ആർക്കെങ്കിലും വല്ല അപകടമോ അതുപോലെ തന്നെ വല്ല മരണമോ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കില് തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തുച്ഛമായ എന്തെങ്കിലും പണം കൊടുക്കുന്നതിനൊക്കെ പകരം അവരുടെ ആവശ്യമെന്താണോ അവർക്ക് എന്താണോ വേണ്ടത് അത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള സഹായം ചെയ്തുകൊടുക്കാൻ സർക്കാർ എന്തായാലും ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചാൽ സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്ക് അവർക്ക് വേണ്ടതായിട്ടുള്ള ഉപകരണങ്ങൾ എത്തിച്ചുകൊടുക്കണം മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായ ബോട്ടില്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മീൻ പിടിക്കാൻ അവർക്ക് ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ അവര്ക്കെന്തായാലും തീർച്ചയായിട്ടും അവര്ക്ക് എത്തിച്ചുകൊടുക്കേണ്ടതാണ് ഇത് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്തമെന്ന് പറഞ്ഞാൽ തൻ്റെ മേലുണ്ടായിരിക്കേണ്ട ഉത്തരവാദിത്തം നിറവേറ്റുകയെന്നാല് എന്താണ് അയാളുടെ കടമയാണ് അപ്പോള് നമ്മുടെ സർക്കാരിൻ്റെ കടമയാണ് ഇങ്ങനത്തെ വല്ല ഏതെങ്കിലും പ്രദേശത്ത് ഇങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടോയെന്ന് കണ്ടെത്തി അവർക്ക് സഹായം ചെയ്തുകൊടുക്കുകയും അതുപോലെ തന്നെ അവർക്ക് വേണ്ട സാമഗ്രികള് അവർക്ക് വേണ്ട ആവശ്യങ്ങള് എത്തിച്ചുകൊടുക്കുകയെന്നുള്ളത് എന്താണ് സർക്കാരിൻ്റെ കടമയാണെന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും അപ്പോള് ഇത്തരത്തിലുള്ള കാര്യങ്ങളില് സർക്കാരിൻ്റെ പിന്തുണ തീർച്ചയായിട്ടും ഓരോ കാര്യങ്ങള് വരുമ്പോള് ഇപ്പോള് ഓരോ സാഹചര്യം വരുമ്പോഴും ഇപ്പോള് പ്രത്യേകിച്ച് എന്തെങ്കിലും അപകട സാധ്യതയുണ്ടെന്നുണ്ടെങ്കില് കടലിൽ മത്സ്യബന്ധനം എന്താണ് നിരോധിക്കും ഈ സമയത്തും അവിടുത്തെ ആളുകൾക്ക് ജീവിക്കാനുള്ള സഹായവും അതുപോലെ തന്നെ അവർക്ക് വേണ്ട പിന്തുണയും കാര്യങ്ങളുമെല്ലാം തീർച്ചയായിട്ടും കൊടുക്കേണ്ടതാണ് ഈയൊരു പിന്തുണയും കാര്യങ്ങളും കൂടാതെതന്നെ ഇപ്പോള് ഒരാൾക്ക് ഈയൊരു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു പിന്തുണ കിട്ടിയാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കീഴിൽ കഴിയുന്നവര്ക്കും അതുപോലെ തന്നെ അദ്ദേഹവുമായി ഇടപെടുന്നവര്ക്കുമൊക്കെ തീർച്ചയായിട്ടും സഹായിക്കാൻ പറ്റും ഇതെന്താണ് തീർച്ചയായിട്ടും ഇവിടുത്തെ സർക്കാർ എന്താണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരിക്കലും ഒഴിവാക്കരുതെന്ന് ഞാൻ പറയുകയാണ്